ഹലോ ആ അതെ

അത് ശരി അപ്പം രണ്ട് മൂന്ന് ദിവസമായി നിങ്ങൾ എന്തെങ്കിലും തണുപ്പുള്ള എന്തെങ്കിലും കഴിച്ച് മഴ നനയുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ തണുപ്പുള്ള എന്താണ് കഴിച്ചത് ആ അതായിരിക്കും തൊണ്ട ഇങ്ങനെ വേദന എടുക്കുന്നത് എന്നാൽ ഒരു കാര്യം ചെയ്യ് എന്തായാലും പിന്നെ നല്ല ചൂട് ഉപ്പിട്ട വെള്ളം നന്നായിട്ട് അതായത് ഇങ്ങനെ കൊള്ളുവാണെങ്കിൽ നല്ലത് ആയിരിക്കും എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യ് ഇന്ന് പറ്റുവെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം നല്ല പനി ഉണ്ടോ അതോ രാത്രി മാത്രം ആണോ പനിക്കുന്നത് ജലദോഷം ഉണ്ടോ കഫക്കെട്ട് ഉണ്ടോ ജലദോഷം കഫക്കെട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വരുവാണെങ്കിൽ ഒന്ന് ആവി പിടിപ്പിക്കാമായിരുന്നു ഒരു രണ്ട് മൂന്ന് നേരം ആവി പിടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ആവി പിടിക്കാൻ പറ്റുവാണെങ്കിൽ വീട്ടിൽ നിന്ന് ആവി പിടിച്ചാൽ മതി നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വരാൻ നമുക്ക് ഒരു മെഡിസിൻ വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തായാലും നമുക്ക് ഒരു മെഷീൻ ഉണ്ടോ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ സാധാരണ ചൂട് വെള്ളം ആണെങ്കിലും കുഴപ്പം ഇല്ല ആ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ ആവി പിടിക്കുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ചൂട് വെള്ളത്തിൽ തന്നെ ആവി പിടിക്കാവുന്നതാണ് എന്തായാലും രണ്ട് മരുന്ന് പറഞ്ഞ് പിന്നെ പാരസൈറ്റാമോളും പിന്നെ ജലദോഷത്തിനും ചുമയ്ക്കും ഉള്ള മരുന്ന് എഴുതി തരാം അത് കഴിച്ച് നോക്ക് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നോക്കിയിട്ട് അഡ്മിറ്റ് ആക്കാം

ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ നമുക്ക് കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഒക്കെ അറിയാം ബ്ലൂഡിന് എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ ഇങ്ങന രാത്രി പനിക്കാൻ ചാൻസ് ഉണ്ട് മ് മ് റിസൾട്ട് ആയിട്ട് വരൂ കേട്ടോ നമുക്ക് അതിനൻ അപ്പം നമുക്ക് അതിനനുസരിച്ച് മരുന്ന് ഇതാക്കാമല്ലോ ഞാൻ ഉച്ച വരെ ഉണ്ടാവും പകൽ പിന്നെ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം ആയിരിക്കും കേട്ടോ

ആയിക്കോട്ടെ